ആ ഹലോ ആരായിരുന്നു ആ ആ ഓക്കെ മേസ്തിരി ആ ഞാന് അങ്ങോട്ടേക്ക് കോൺടാക്ട് ചെയ്യാനിരിക്കുകയായിരുന്നു നമുക്ക് നമ്മുടെ വീട് ആ ലോഫ്ലോറില് നിന്ന് നമുക്കൊരു ഫ്ലോറും കൂടെ പണിതാല് കൊള്ളാമെന്നുണ്ട് അപ്പം ഇപ്പോള് നിലവിൽ നമ്മുടെ ബേസ്മെൻറ്റെന്നു പറയുമ്പോള് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് സ്ക്വയർ ഫീറ്റാണ് അപ്പം നമുക്കിത് മുകളിലേക്ക് എക്സ്സ്റ്റൻഡ് ചെയ്യാനായിരുന്നു അപ്പം അത് എന്ത് ടൈം എടുക്കുമായിരിക്കും ഞാന് ഉദ്ദേശിക്കുന്നതെന്നു പറഞ്ഞാല് ഒരു രണ്ട് ബെഡ്റൂം ഒരു ബാത്റൂം ഒരു വർക്ക് ഏരിയ അതൊക്കെയായിരുന്നു ഉദ്ദേശിക്കുന്നത് ആണല്ലേ ഇപ്പോള് നമുക്കീ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് ഒത്തിരി ടൈം എടുക്കുമായിരിക്കുമോ കൺസ്ട്രക്ഷന് ആ ഓക്കേ അതുമല്ല നമുക്ക് വീടിൻ്റെ ഫ്രണ്ടിലൊരു ഫൗണ്ടേഷൻ സെറ്റ് ചെയ്താല് കൊള്ളാമെന്നുണ്ട് ഒരു വാട്ടർ ഫൗണ്ടേഷൻ ആ നമുക്കിപ്പോള് വീടിൻ്റെ ഒത്ത നടുക്കായിരുന്നു വരേണ്ടത് ഫ്രണ്ടിലെ ആ പിന്നെ നമ്മുടെ വീട് നാലുകെട്ടാണ് അപ്പോള് നാലുകെട്ടിൻ്റെ സെൻ്ററായിട്ടുവരണം ആ ഓക്കേ അതുപോലെതന്നെ നമുക്കിപ്പം വീട് നിലവില് നമ്മുടെ മുറ്റത്തുകിടക്കുന്നത് ചിപ്സാണ് സാധാരണ കല്ലിൻ്റെ ചിപ്സ് അപ്പോള് ആ അപ്പോള് അത് മാറ്റിയൊന്ന് ഇൻ്റർലോക്ക് ചെയ്താല് കൊള്ളാമെന്നുണ്ട് അപ്പം ഇൻ്റർലോക്കിന് ഒത്തിരി ടൈമെടുക്കുമോ ആകുകയുള്ളൂ അല്ലേ ആ അപ്പോള് ഈ ഇൻ്റർലോക്ക് ചെയ്യുമ്പോള് ഈ ഭൂമിയിലേക്ക് വെള്ളം ഇറങ്ങില്ലെന്നൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ട് അപ്പം അതൊക്കെയുള്ളതാണോ ആണല്ലേ ഓക്കേ അങ്ങനെയാണെന്നുണ്ടെങ്കില് ഞാന് അങ്ങോട്ട് വിളിച്ചേക്കാം ആ പ്ലാൻ ഞാന് വാട്സപ്പ് ചെയ്യാം വാട്സപ്പ് ചെയ്യാം എന്തോ കേട്ടില്ലായിരുന്നു ആ സെൻഡ് ചെയ്തേക്കാം ഓക്കെ